എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവികളിൽ ഒരാളാണ് കുമാരനാശാൻ അദ്ദേഹത്തെ സ്നേഹഗായകൻ എന്നും അറിയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണമാണ് ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് കുമാരനാശാൻ അദ്ദേഹത്തിനെ സ്നേഹഗായകൻ എന്ന് പറയാൻ കാരണമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ എപ്പോഴും സ്നേഹം നിലനിൽ നിലനിന്നിരുന്നു അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നത് സ്നേഹത്തിനാണ് കൂടാതെ തന്നെ അദ്ദേഹം നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥക്കെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് അത് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെയാണ് അദ്ദേഹം കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥക്കെതിരെ പോരാടിയത് എക്സാംപിൾ പറയുകയാണെങ്കിൽ ഒരു നല്ലൊരുദാഹരണമാണ് ചണ്ടാലഭിക്ഷുകി അദ്ദേഹം എഴുതിയതാണ് അതിലൂടെ അദ്ദേഹം കേരളത്തിൽ നിലനിന്നിരുന്ന ഈ ഒരു ജാതി വ്യവസ്ഥക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചിരുന്നു